അ ജിസൽ ജിസയല്ലേ അ ജിസെ ഞാൻ ഇതു വിളിക്കുന്നതേ നമുക്കു വീട്ടിലേക്കൊരു പത്രം ഇടുന്നതിനെക്കുറിച്ചു സംസാരിക്കാനായിരുന്നേ അ അതെ നമുക്കിപ്പോള് നിലവില് എതൊക്കെ പത്രങ്ങളാണ് ഇപ്പോള് നിലവിലുള്ളത് ഇംഗ്ലീഷ് പത്രം ഇൻഡ്യൻ എക്സ്പ്രസില്ലെ ഉണ്ട് അതുണ്ട് അ ഇതിൻ്റെയൊക്കെ റേറ്റൊന്ന്ു പറയാമോ അ അതെ അല്ലേ നമുക്ക് ഇതിപ്പോള് ജെസ്റ്റിന് ഏതൊക്കെ ഞാൻ താമസിക്കുന്നത് നമ്മുടെ കുരുവിള സിറ്റി ഭാഗത്ത് ആ ഭാഗത്തൊക്കെ ജെസിനിപ്പോള് പത്രം ഇടുന്നുണ്ടോ ആ ഭാഗത്തെല്ലാം ഉണ്ട് അപ്പോള് എൻ്റെ വീട്ടിലേക്കു വരാൻ സൌകര്യമായിരിക്കുമല്ലോ അല്ലേ അ ഓക്കെ അ അ ഓകെ നമുക്ക് മാസം ഈ പേപ്പർ ചാർജ് മാത്രമല്ലേ വരുന്നുള്ളൂ അല്ലാതെ എക്സ്ട്രാ ചാർജുകളൊന്നും വരുന്നല്ലല്ലോ അല്ലേ അ പിന്നെ മാസികകളായിട്ട് എന്തൊക്കെയാണ് ഉള്ളത് കുറേ മാസികകളുണ്ടല്ലേ അ ഇതെല്ലാം ഈ വീക്ക്ലികളല്ലേ വീക്കിലികള് അ ഓക്കെ ഓക്കെ മ് അപ്പോള് പിള്ളേരൊക്കെ പഠിക്കുന്നത് ഉള്ളതുകൊണ്ട് നമുക്ക് വേണമെങ്കില് ഒരു കുറച്ച്ു മാസത്തേക്ക് ഇൻഡ്യൻ എക്സ്പ്രസ് ഇട്ടാലോ എന്ന് ആലോചിക്കുകയാണ് അ അ അ അത്രയും വരുന്നുണ്ടോ അപ്പോള് ഇരുന്നൂറ്റി അന്പതെന്നു പറഞ്ഞതുപോലെ തോന്നി അ പത്രത്തിനാണോ അപ്പോള് അ അപ്പോള് എനിക്കെന്നാല് പത്രം ഇട്ടാല് മതി പത്രം ഇൻഡ്യൻ എക്സ്പ്രസ് അ ഹ ഹ അപ്പോള് എപ്പോഴത്തേക്കാ നമുക്കു രാവിലെ വീട്ടില് എത്തും പേപ്പര് അതെ അല്ലേ ഉ ഹും പിന്നെ അപ്പോള് അപ്പോള് അങ്ങനെയാണെങ്കില് ഉള്ളിലേക്ക് ഒത്തിരി കയറിയല്ല എന്നാല്പ്പോലും ജെസ്റ്റിന് സൌകര്യപ്രദമായിട്ട് ഞാനിടാനൊരു സ്ഥലം പറയാം മ് അപ്പോള് അ അ ജെസ്റ്റിനാ പ്രദേശത്തെ മെയിനായിട്ട് എതൊക്കെ വീട്ടിലെ എൻ്റെ എൻ്റെ വീട് ഏകദേശം അറിയമോ ജെസ്റ്റിന് അ അ എൻ അ എൻ്റെ പേരു ശരിക്കും സിറ്റി ഭാഗമാണേ ഇപ്പോള് കുരുവിള സിറ്റിയുടെ മുകളിൽ അവടൊരു ഗ്രോട്ടോയൊക്കെയുണ്ട് ഗ്രോട്ടോയുടെ തൊട്ടു താഴെയായിട്ടാണ് ഒരിത് ഇരിക്കുന്നത് അപ്പോള് വീട്ടില് ഒന്നെങ്കില് വല്ല ആ ഭാഗത്തുതന്നെ ആ ഭാഗത്തുതന്നെ അപ്പോള് അവിടെ ഒന്നെങ്കിലാ ഉണ്ണിയുടെ വീട്ടിലിടുവോ ഇട്ടാല് മതി ഞാനെടുത്തോളാം അ മിള്ളിപിള്ളി ഉണ്ണിയില്ലേ ആ ഉണ്ണിയുടെ വീട്ടിൽ ഇട്ടാല് മതി അപ്പോള് അതിനു കുഴപ്പമില്ലല്ലോ അല്ലേ ഓക്കെ ഓക്കെ താങ്ക്യൂ താങ്ക്യൂ